എൻ്റെ ജീവിതത്തില് ഒരു സുപ്രധാന നിമിഷം എടുക്കേണ്ടി വന്നത് എപ്പോഴാണെന്ന് വച്ച് കഴിഞ്ഞാല് ഞാൻ എം എ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് നെക്സ്റ്റ് എന്താണെന്നുള്ളത് വളരെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാന് പ്രഗതി ഇരട്ടി പ്രഗതി കോളേജില് പി എസ് സി കോച്ചിങ്ങിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു പി എസ് സി ചെയ്യാം ഇനി പി എസ് സി മുന്നോട്ടേക്ക് പോയിട്ട് അതിലെന്തെങ്കിലും ജോലി കണ്ടെത്താന്നുള്ള ഒര് തീരുമാനത്തിലായിരുന്നു ഞാൻ പക്ഷേങ്കില് എന്നോട് അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു പി എസ് സി ചെയ്യുന്നതിനേക്കാളും നല്ലത് ബി എഡ് എം എ കഴിഞ്ഞതല്ലേ അപ്പം ബി എഡ് ചെയ്ത് കഴിഞ്ഞാല് എന്തെങ്കിലും അതിലൊരു ഗുണം ഉണ്ടല്ലോ എന്ന് കരുതി അച്ഛനും അമ്മയും എന്നെ ഉപദേശിച്ചിരുന്നു അപ്പം ഞാൻ അവരുടെ ആ ഉപദേശം കണക്കിലെടുത്ത് ബി എഡിന് അപ്ലൈ ചെയ്തു ബി എഡിന് അപ്ലൈ ചെയ്തു പിന്നെ എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബി എഡിന് വിളിച്ചു മെറിറ്റ് സീറ്റിൽ തന്നെ എനിക്ക് സീറ്റ് കിട്ടി അപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ പോകണമോ വേണ്ടയോ പോകണമോ വേണ്ടയോ എന്നുള്ളത് പക്ഷേ എന്നെ അമ്മയാണ് എന്നെ മുന്നോട്ട് നയിച്ചിട്ട് പറഞ്ഞത് ബി എഡ് ചെയ് ബി എഡ് ചെയ് രണ്ട് കൊല്ലം അല്ലെ ബി എഡ് ചെയ്തോ എന്നുള്ള കാര്യം അപ്പ അമ്മേൻ്റെ ആ ഒര് ഉപദേശം ഞാന് മനസ്സിൽ ഉൾക്കൊണ്ട് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ബി എഡിന് പോയി ചേർന്നു അങ്ങനെ ഞാനൊരു പ്രധാനപ്പെട്ട നിമിഷം എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട് അതിൽ ഇന്ന് എനിക്ക് വളരെ ഗുണകരമായിട്ട് മാറിയിരിക്കുന്നു കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ ആഗ്രഹിച്ചൊരു ജോലി പ്രഫഷനാണ് ടീച്ചിങ് എന്നുള്ളത് അപ്പം ബിഎഡിനെ കൊണ്ട് അതിൽ ഉപകാരം ഉണ്ടായി അതിലൊരുപാട് ടീച്ചിങ്ങ് ട്രെയിനിങ്ങ് ട്രെയിനിങ് ടീച്ചർക്ക് വേണ്ടുന്ന ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെ ഒരു ടീച്ചറാവണം എങ്ങനെ കുട്ടികളുടെ മുന്നില് നമ്മള് ഒര് ടീച്ചറായിട്ട് ജോലി ചെയ്യണം എന്നുള്ള ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ ഈ ഒര് കോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടാൻ സാധിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സുപ്രധാന നിമിഷം ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തില് ബി എഡ് ചെയ്യാനുള്ളത് അതിന് ഉപദേശം എനിക്ക് നല്ല ഉപദേശം തന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ്